ഹലോ മാം പറയു ഏഹ് ഹലോ ആഹ് ഓക്കേ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് വിളിച്ചിട്ടിണ്ടായിരുന്നുന്ന് സാറ് വിളിച്ച് മാമിവിടെ വരും ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം ഓക്കേ ഓക്കേ മാം മാം പുറത്തായിരുന്നോ അപ്പോൾ സ്റ്റഡീസും കാര്യങ്ങളുമൊക്കെ പുറത്തായിരുന്നല്ലേ മാം ഫാമിലിയൊക്കെ നാട്ടിലുണ്ടായിരുന്നില്ലവർ ആ ആ മാമിൻറ്റെ നാടെവിടായിരുന്നു കേരളത്തിലെവിടായിരുന്നു മാമ് ഉണ്ടായിരുന്നത് ഓക്കേ ചൈൽഡ് ഹുഡ്ഡ് തൊട്ടെ പുറത്തായിരുന്നു അല്ലേ മാം ഓക്കേ മാം ഇവിടെ ഗോഡ്സ് ഓൺ കൺഡ്രിയെന്ന് പറയുമ്പം അതിൻ്റെ സ്പെഷ്യാലിറ്റി കാരണം അവിടെ നമ്മുടെ ഓരോരോ ഡിസ്ട്രിക്ടിനും ഓരോരോ സ്ഥലത്തും അതിൻറ്റേതായ സ്പെഷ്യാലിട്ടീസും അതിൻറ്റേതായ ഫുഡ്ഡും അതിൻറ്റേതായ ലൈക് ബാക്ക് വാട്ടഴ്സ് ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ മാം താമസിക്കുന്ന സ്ഥലത്ത് ബാക്ക് വാട്ടഴ്സും കായലും ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ്ഡാണേ വേറെ ടേസ്റ്റ് ഓരോരോ നമ്മുടെ ഓരോ സ്ഥലത്തും പതിനാല് ജില്ലക്കും പതിനാല് ടേസ്റ്റും അതിൻറ്റേതായ രീതികളും ആയിരിക്കും അതാണ് മെയ്നായിട്ട് നമ്മൾ ഗോഡ്സ് ഓൺ കണ്ട്ട്രി പിന്നെ ലൈക് പിന്നെ ഇവിടുത്തെ നേച്ചർ നേച്ചറാണെങ്കിലും ഡിഫറൻറ്റാണ് നമ്മൾ ഞങ്ങളുടെ ഇവിടെ കഥകളി നമുക്ക് തൃശ്ശൂർ പോവാം മാം നമുക്ക് എൻ്റെ വീട് പാലക്കാടാണ് പാലക്കാട് നമുക്ക് അ വേറെ പൂരങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ നെന്മാറ വേല അതേപോലെ തന്നെ അടുത്ത് വേലകളും കാര്യങ്ങളും അവിടെ നമുക്ക് വേറെ ട്രഡിഷനാണ് പാലക്കാട് പാലക്കാട് നമ്മുടെ പിന്നെ നെല്ലിൻറ്റെ കേന്ദ്രമാണ് നെല്ല് കൊയ്ത്ത് ഓ മാം കൊണ്ട് പോകാം തീർച്ചയായിട്ടും നമുക്ക് ആഹ് നമുക്കിവിടെ തൃശ്ശൂർ കലാമണ്ഡലം ഉണ്ട് കലാമണ്ഡലത്തിൽ നമുക്കിവിടെ ഇടക്ക് പ്രോഗ്രാംസും കാര്യങ്ങളുമൊക്കെ അവർ ഏർപ്പാടെയ്യുന്നതാണ് നമുക്ക് മാമിന് അറേഞ്ചു ചെയ്യാം മാമിവിടെ വരുവാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നമുക്കവിടെ പോയി കണ്ട് അതിൻ്റെതായ തനതായ കാര്യങ്ങളൊക്കെ അനുഭവിക്കാം ആ മാം ആ അത് മാം ഇപ്പോൾ മാമിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു പല ജില്ലക്കും പല ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് വരുവാണെങ്കിൽ തനി നാടൻ ഭക്ഷണം കിട്ടും അതേപോലെ തന്നെ കോഴിക്കോട് സൈഡ് പോകുവാണെങ്കിൽ അവിടുത്തെ ബിരിയാണി കാര്യങ്ങൾ മലബാറി സാധനങ്ങളായിരിക്കും അവിടുത്തെ ഹൽവ ആ മലബാറി ഫുഡ്സ് വേറെ ടേസ്റ്റാണ് അതേപോലെ നമ്മളിപ്പോൾ ആലപ്പുഴയിൽ വരുവാണെങ്കിൽ കരിമീൻ കരിമീൻ പൊള്ളിച്ചത് അതവിടുന്ന് കഴിക്കുമ്പോൾ അവിടുത്തെ ടേസ്റ്റും വ്യത്യാസമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ജില്ലയിൽ പോയിട്ട് കരിമീൻ പൊള്ളിച്ചത് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ആലപ്പുഴ ആവോ ഫിഷ്കൊണ്ടേ

ഓക്കേ മാം നിങ്ങൾ വരണോട്ടോ മാം ശരി ഓക്കേ താങ്ക് യൂ